മാധ്യമങ്ങള് ഇപ്പോള് വളരെ അധികം നമ്മളെ ഒന്നിനുംതന്നെ അവര്ക്കൊരു ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലാണ് പ്രവര്ത്തിക്കുന്നത് എന്തും വളച്ചൊടിച്ച് ആരെയും കുറ്റം പറയാന് ആരെയും കൊലക്ക് കൊടുക്കാം എന്നുള്ള രീതിയിലാണ് മാധ്യമങ്ങളുടെ പോക്ക് ഇങ്ങനെയല്ലായിരുന്നു വേണ്ടുന്നത് മാധ്യമങ്ങളെപ്പോഴും ജനങ്ങള്ക്കുവേണ്ടി നില നിലകൊള്ളേണ്ടവരായിരുന്നു അവര് രാഷ്ട്രീയങ്ങളുടെ ഇടയിലും മാധ്യമങ്ങളും മാധ്യമങ്ങളായിരുന്നു എല്ലാവരുടെയും ഇടയില് നിന്ന് പ്രവര്ത്തിക്കേണ്ടത് പക്ഷേ ഇന്ന് അതൊന്നുമല്ല നടന്നുവരുന്നത് പരസ്പരം നാട്ടുകാരേയും ജനങ്ങളെ തമ്മിൽ അടിപ്പിക്കുന്ന രീതിയിലാണ് വാര്ത്താമാധ്യമങ്ങള് വാർത്ത മാധ്യമങ്ങളില് എല്ലായിടവും നടക്കുന്ന കാര്യങ്ങളൊന്നും തെ കാണിക്കാറില്ല ഒരു മാധ്യമമെന്നു പറഞ്ഞു കഴിഞ്ഞാല് നമുക്കടെ ഇടയില് നില്ക്കുന്നവയാണ് നമ്മള് മാധ്യമം എന്ന് പറഞ്ഞു ഉദ്ദേശിക്കുന്നത് അതായത് പല നാടുകളിലും പല സ്ഥലങ്ങളിലും നടക്കുന്നത് നമുക്ക് അറിയാനായിട്ടാണ് നമ്മളിതിനെ സഹായം ആക്കുന്നത് പക്ഷേ എല്ലായിടവും നടക്കുന്ന കാര്യങ്ങളെ സത്യസന്ധമായ രീതിയില് അല്ല മാധ്യമങ്ങളിലൂടെ പുറത്ത് വരുന്നത് അപ്പോള് ആര്ക്കൊക്കെയോ വേണ്ടി സഹായ രാഷ്ട്രീയത്തിനാന്നെങ്കിലും നമ്മുടെ പല വലിയ വലിയ ആളുകള്ക്കുവേണ്ടിയും സഹായം പണം മേടിച്ച് സഹായം നേടുന്ന ആളുകളെ പോലെയാണ് മാധ്യമങ്ങളെ എനിക്ക് തോന്നാറുള്ളത് മാധ്യമങ്ങളിലൊന്നും നമ്മള് പാവങ്ങളായ ഇപ്പം ഓരോ അപകടങ്ങള് പറ്റിയുള്ള ഒരു പ്രശ്നങ്ങളുണ്ടാകുന്ന സമൂഹത്തില് ജീവജാലങ്ങളെയും ജീവിതങ്ങളെയും എല്ലാം അവര് അടച്ച് കാണിക്കുകയാണ് തുറന്ന് കാണിക്കാറില്ല എല്ലാവരെയും പറ്റി എല്ലാം പറയുന്നതിൽ മൊത്തോം കള്ളത്തരം ചാലിച്ചു കൊണ്ടാണ് പറയാറുള്ളത് മാധ്യമങ്ങളുടെ ഈ സ്വഭാവരീതി വളരെയധികം ദോഷം ചെയ്യും സമൂഹത്തില് പല പാവപ്പെട്ട വീട്ടുകാരെയും കുറിച്ച് മോശമായ രീതിയില് തന്നെയാണ് പ്രവര്ത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവര് ചെയ്യേണ്ടത് അവരുടേതായ രീതികളിളല്ല നമ്മള് മാധ്യമങ്ങളെ വിശ്വസിച്ചു കൊണ്ടാണ് നമ്മള് എല്ലാ കാര്യങ്ങളും അറിയാന് ഈ ടി വി പോലുള്ള ഓരോ കാര്യങ്ങളും തുറന്ന് വെച്ചിരിക്കുന്നത് പക്ഷേ നമുക്കറിയാന് പറ്റുന്ന ഈ കാര്യങ്ങള് ഈ വാര്ത്തകളെല്ലാം പലപ്പോഴും തെറ്റായിരിക്കും പല നാടുകളിൽ എന്നാല് ഈ മാധ്യമങ്ങളില് ചിലവര് നല്ല രീതിയില് പ്രവര്ത്തിക്കുന്നവരുമുണ്ട് നമുക്ക് എപ്പോഴും അറിയാനാഗ്രഹമാണ് എല്ലായിടത്തെയും നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി എല്ലായിടവും നമ്മുടെ സമൂഹത്തില് എന്തെല്ലാം പ്രശ്നങ്ങള് നടന്നു വരുന്നുവെന്ന് നമ്മുടെ മാധ്യമങ്ങളിലൂടെയാണ് നമുക്കെല്ലാം മനസ്സിലാവേണ്ടത് എന്നാല് ഇവിടെ നേരെ തിരിച്ചാണ് മാധ്യമങ്ങള് എന്തുകൊണ്ടാണ് ഇങ്ങനെ മറ്റുള്ളവര്ക്ക് സഹായം ചെയ്യുന്നത് പോലെ എല്ലാം ഒളിച്ചു വെച്ചു സംസാരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എല്ലാ ഇടങ്ങളില് നിന്നും ഇപ്പോള് അവര് അവരുടേതായ ഒരു സ്റ്റാന്റ് മാധ്യമങ്ങള്ക്ക് സപ്പോര്ട്ടായി നില്ക്കുന്നവരെ സപ്പോര്ട്ട് ചെയ്തുകൊണ്ട് തന്നെയാണ് മാധ്യമങ്ങള് സംസാരിക്കുന്നത് ഒരിക്കലും തന്റെ അവർ എല്ലാവരും പേർസണൽ ആയിട്ടുള്ള രീതിയില് എടുത്തുകൊണ്ടാണ് സംസാരം ഒരിക്കല് പോലും അത് പബ്ലിക് വേണ്ടിയാണ് നിൽക്കേണ്ടത് മാധ്യമം മാധ്യമം മാധ്യമജീവിതം വര്ത്തമാനങ്ങളും എല്ലാം നമ്മുടെ എല്ലാ ജീവിതങ്ങള്ക്കിനി സമൂഹത്തിനൊരു പബ്ലിക്കിന് വേണ്ടി നിൽക്കണമെന്ന് ആണ് ഞാന് പറയുന്നത് എന്നാല് മാധ്യമങ്ങളങ്ങനെയല്ല അവര് അവരുടേതായ പല വാര്ത്തകളും അവര് ഒളിച്ചു വെക്കാറുണ്ട് തന്റെ ഏതെങ്കിലും വലിയ വലിയ വലിയ മുതലാളികൾമാര് പറയുന്നതുപോലെ അവര് പൈസ കൊടുക്കുമ്പോള് ആ പറയുന്ന പല വാര്ത്തകളും അവർ മറച്ചുവെക്കും എന്നാല് പലരേയും പലര്ക്കുംവേണ്ടി പല കള്ളത്തരവും പറയാനും സത്യസന്ധയ്മ ഇല്ലായ്മ കാണിക്കാനുമെല്ലാം മാധ്യമങ്ങള്ക്കിപ്പോള് വളരെയധികം കഴിയുന്നുണ്ട് ഞാന് അങ്ങനെയൊന്നുമല്ല വിചാരിക്കുന്നത് എനിക്ക് ഇങ്ങനെയൊന്നും വിചാരിക്കണമെന്നുമില്ല എനിക്ക് വേണ്ടുന്നത് നല്ല രീതിയില് പ്രവര്ത്തിക്കേണ്ട മാധ്യമങ്ങളെയാണ് നമുക്ക് എല്ലാ ന്യൂസുകളും എല്ലാ കാര്യങ്ങളും നമ്മള് അറിയേണ്ടത് ഈ മാധ്യമത്തിലൂടെ തന്നെയാണ് വാര്ത്തകളെപ്പോഴും എല്ലാ ജനങ്ങളും അറിഞ്ഞിരിക്കണം ഈ ലോകത്ത് നടക്കുന്ന എല്ലാ കാര്യങ്ങളും അറിയാന് നമുക്ക് ഒറ്റ ഒരേയൊരു വഴി മാധ്യമം തന്നെയാണ് ഈ മാധ്യമം അന്നേരം പറഞ്ഞത് മറച്ചു വെച്ച് പലരേയും സപ്പോര്ട്ട് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാല് അത് നമ്മളെ തന്നെ ദോഷം ബാധിക്കുകയാണ് അവര് അവരുടെ റേറ്റിംഗും അതും അവരുടെ ചാനലില് കൂട്ടാനൊക്കെയായിട്ട് അവര് പലതും പ്രവര്ത്തിക്കും പൈസ തരുന്ന ആളുകള്ക്കുവേണ്ടി മാത്രം സംസാരിക്കുന്നതുപോലെ തോന്നാറുണ്ട് പല പ്രശ്നങ്ങളിലും അവര് അവരുടെ സ്റ്റാന്റ് സപ്പോര്ട്ട് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത് എന്നാല് ഇതെല്ലാം കണ്ടുകൊണ്ട് പലതും അഭിമുഖീകരിക്കുന്ന കുറെ ആളുകളുണ്ടെന്ന് അവര് ചിന്തിക്കുന്നില്ല പലയിടങ്ങളിലും പട്ടിണിയും പരവേശവുമായിട്ട് കഴിയുന്ന പല കുടുംബങ്ങളുണ്ട് അവരുടെയൊക്കെ നിസ്സഹായ അവസ്ഥയെ പുറത്തോട്ട് കൊണ്ടു വന്ന് ഈ ലോകത്തിന് മുന്നില് കാണിച്ചുകൊണ്ട് അവര്ക്കെന്തെങ്കിലും സഹായം നേടി കൊടുക്കാമെന്ന് മാധ്യമങ്ങള് ചിന്തിക്കാറില്ല അങ്ങനെയുള്ള സ്ഥലങ്ങളില് പോയി കുറെ വീഡിയോഗ്രാഫ് ഫോട്ടോഗ്രാഫ് ഒക്കെ എടുത്ത് പബ്ലിക്കിലേക്ക് ഇട്ടുകൊടുത്ത് നാറ്റിക്കാന് ഇവര്ക്ക് നല്ലോണം കഴിവുണ്ട് എന്നാല് പോലും അവര് ഒരിക്കൽ പോലും ചിന്തിക്കുന്നില്ല ഇങ്ങനെ ഈ ഒളിഞ്ഞും മറിഞ്ഞും മറയത്തായി കിടക്കുന്ന പല ആളുകളും ഉണ്ട് അവരെയൊക്കെ ഒന്ന് രക്ഷിക്കണമെന്ന് അതുപോലെ തന്നെ ഇന്ന് ഈ കാലത്ത് ഒരുപാട് പേര് ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട ആളുകള് ലഹരികൾ ലഹരി കാരണം എന്തെല്ലാമാണ് ദുരിതങ്ങളാണ് ഓരോ കുടുംബങ്ങളിൽ അനുഭവം കൊണ്ടുവരുന്നത് ഈ കുഞ്ഞു പ്രായത്തിലുള്ള കുട്ടികള് മുതല് സ്കൂള് പരിസരങ്ങളിലേക്ക് ഇന്ന് ഈ ലഹരി അതില് നിന്ന് പ്രശ്നം ഉണ്ടാകുന്നത് കുട്ടികള്ക്കാണ് ഈ ലഹരി വിൽക്കുന്നതിലൂടെ ഓരോ കടകളാണ് സ്കൂളിന് ചുറ്റും വന്ന് വലയം കെട്ടിയിരിക്കുന്നത് അവിടുന്ന് കുഞ്ഞു പിള്ളേര് തൊട്ട് വലിയ പിള്ളേർ വരെ അവിടുന്ന് ലഹരി പദാര്ത്ഥങ്ങള് മേടിക്കുന്നു ഇതിനെതിരെ ഒരു മാധ്യമ പ്രവര്ത്തകന് എന്ന മാധ്യമങ്ങള് ഇതിനെതിരെ ശക്തമായി പ്രതിഷേധിച്ചാല് ഇന്ന് നമുക്ക് ഒരു നല്ല മാറ്റം അതിൽ കൊണ്ടുവരാന് കഴിയും അങ്ങനെയുള്ള കാര്യങ്ങള് ഒന്ന് ശ്രമിക്കുന്നതേ ഇല്ല മാധ്യമം മാധ്യമങ്ങള്ക്ക് ഇങ്ങനെയുള്ള കുറെ വാര്ത്തകള് മുന്നോട്ട് കൊണ്ടുവരുക ഇങ്ങനെയുള്ള പലരേയും പലരുടേയും മുഖം മൂടി അഴിച്ചു കാണിക്കുക ഇതൊക്കെ മാധ്യമങ്ങള് ചെയ്യണം നമ്മുടെ ഇപ്പോഴത്തെ ഈ ലഹരി കൊണ്ടുതന്നെ പല കുടുംബങ്ങളും മക്കളൊരിക്കലും സ്വന്തം അമ്മയെന്നും അച്ഛനെന്നും പോലും ഓര്ക്കാതെ ലഹരിയില് ഈ ഓരോ ഓരോ അവ സാധനങ്ങളും വാങ്ങി ഉപയോഗിച്ചു തന്റെ മാതാവോ പിതാവോ എന്നില്ലാതെ എല്ലാവരോടും ക്രൂരത കാണിക്കുന്ന ഒരു കാലമാണ് ഈ കടന്നു വന്നു കൊണ്ടിരിക്കുന്നത് ഇതില് മാധ്യമങ്ങള്ക്ക് ഒരു പങ്ക് ഉണ്ട് താന് മാധ്യമങ്ങള് ചെയ്യുന്നത് എന്താണ് എവിടെല്ലാം കഞ്ചാവുകളുണ്ട് എവിടെല്ലാം ലഹരി പദാര്ത്ഥങ്ങളുണ്ട് അതെല്ലാം പുറത്ത് വിടുന്നുണ്ട് എന്നാല് എന്താണ് കുറെ അനുഭവിക്കുന്നവർ പാവപ്പെട്ടവരുണ്ട് അവരെ സഹായിക്കാന് അവരെ സംരക്ഷിക്കാനുമായിട്ട് ഒരു രീതിയില് ഒരു നീതി കാണിക്കാനും ആരും കഴിയുന്നില്ല ആര്ക്കും കഴിയുന്നില്ല അങ്ങനെയല്ല വേണ്ടുന്നത് മാധ്യമങ്ങള് എപ്പോഴും സമൂഹത്തിന് വേണ്ടി നിലകൊള്ളണം സമൂഹത്തിന്റെ ഓരോ പ്രശ്നങ്ങളും ചൂണ്ടി കാണിച്ചുകൊണ്ട് ഈ സര്ക്കാരില് നിന്ന് അവര്ക്കു വേണ്ടുന്ന നീതി മേടിച്ച് കൊടുക്കേണ്ട ആളുകളാണ് എന്നാണ് ഞാന് മാധ്യമത്തെ പറയുന്നത് പക്ഷേ അങ്ങനെയല്ല ഈ കാലത്ത് കാലഘട്ടങ്ങളില് ഇപ്പം നടന്നു കൊണ്ടിരിക്കുന്നത് ആര്ക്കോ വേണ്ടി രാഷ്ട്രീയം സമൂഹം അവര്ക്കുവേണ്ടി പറഞ്ഞുകൊണ്ട് ആര്ക്കൊക്കെയോ വേണ്ടി സഹായം കൊണ്ട് ആര്ക്കൊക്കെയോ വേണ്ടി സപ്പോർട്ടിനായിട്ട് നില്ക്കുന്ന ആളുകളെ പോലെയാണ് എനിക്ക് തോന്നാറുള്ളത് നമ്മള് പല സിനിമകളിലും കാണുന്നതുപോലെ മാധ്യമങ്ങളിന്നു വലിയ വലിയ മുതലാളികളുടെ അടിമകളായി മാറുകയാണ് പണം കൊണ്ട് ആരു സഹായിക്കുമോ അവരുടെ ചുറ്റും പോകാമെന്ന നിലയിലാണ് ഇപ്പോഴത്തെ മാധ്യമങ്ങളുടെ പോക്ക് എന്നാല് നമ്മുടെ സമൂഹത്തില് ഇന്നി ഇനി കുറെ ആളുകളുണ്ട് അവര്ക്കെന്തെങ്കിലും സഹായമോ അല്ലെങ്കില് അവരുടെ കാര്യങ്ങളെല്ലാം കറക്റ്റായി പോകുന്നുണ്ടോ അവര്ക്കെന്തെലും പ്രശ്നമുണ്ടോ എന്ന് ഇറങ്ങി ഒന്ന് ഒരു ഓരോ ആകം ആകെ റോഡ് സൈഡില് കാണുന്ന പത്ത് വീട് തിരക്കാതെ ഉള്ളോട്ട് ഉള്ളോട്ട് പോയി എല്ലാ കുഞ്ഞു വീടുകളിലും കുടിലുകള് മാത്രം കെട്ടി ഓരോ പ്രശ്നങ്ങളായിട്ട് പൈസ പോലും ഇല്ലാതെ അതിന്റെ പെന്ഷന് പോലും വരാത്ത രീതിയില് ഓരോ പ്രശ്നങ്ങള് അനുഭവിക്കുന്ന പല ആളുകളുണ്ട് ചിലരുടെയൊക്കെ വീട്ടിൽ ഓരോ അപ്പൂപ്പനും അമ്മൂമ്മകളും മാത്രം ഒറ്റക്ക് കിടന്ന് ദുരിതം അനുഭവിക്കുന്നവരുമുണ്ടാകും അങ്ങനെയുള്ളവരെയൊക്കെ ഒന്ന് ഈ മാധ്യമങ്ങളിലൂടെ പുറത്തേക്ക് കൊണ്ടുവന്ന് അവര്ക്ക് നീതി മേടിച്ച് കൊടുക്കണമെന്ന് ഞാന് മാധ്യമങ്ങളോട് പറയുകയാണ് ഇന്ന് ഈ ഓരോ പ്രശ്നങ്ങളും ഈ ഗ്രാമ പ്രദേശങ്ങളിലും ഉള്നാട്ടിലും ഈ ഉള്പ്രദേശങ്ങളിലും ഒന്നും നടക്കുന്ന ഓരോ പ്രശ്നങ്ങളും മാധ്യമങ്ങള് പുറത്തോട്ട് കൊണ്ടുവരുന്നില്ല ഈ ഗ്രാമപ്രദേശങ്ങളിലക്കെ എന്തിനു കൃഷിയുമായി ബന്ധപ്പെട്ട് എന്തെല്ലാം കാര്യങ്ങളാണ് ഒളിഞ്ഞും മറിഞ്ഞും കിടക്കുന്നത് എത്രയോ കൃഷിക്കാര് ആത്മഹത്യ ചെയ്യുന്നു ഇന്നിങ്ങനെ എന്തെല്ലാം കാര്യങ്ങളാണ് അവര് അവര്ക്കൊരു നീതി മേടിച്ചു കൊടുക്കാനായിട്ട് മാധ്യമങ്ങള്ക്ക് ശ്രമിക്കാവുന്നതാണ് എന്തെല്ലാം എന്തെല്ലാം പ്രശ്നങ്ങളാണ് കടന്നു പോയിക്കോണ്ടിരിക്കുന്നത് മാധ്യമങ്ങള്ക്ക് നല്ല രീതിയില് പ്രവര്ത്തിക്കാവുന്നതാണ്